ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഹോസ്പിറ്റലുകൾ അതുപോലെ താലൂക്ക് ഹോസ്പിറ്റലുകൾ ഇത് രണ്ടും ഒന്നുകൂടെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരു ചികിത്സക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും പാവപ്പെട്ടവർക്കൊക്കെ ഇപ്പം പഞ്ചായത്ത് ഹോസ്പിറ്റലുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിലൂടെ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ദൂരെ അങ്ങനെ പോകുന്നതിനെ കാട്ടിലും ഇപ്പോൾ അതുപോലെ ഡെയിലി റൊട്ടീൻ ചെക്കപ്പിനൊക്കെ അവർക്കു പഞ്ചായത്ത് ഹോസ്പിറ്റലിലോട്ട് പോയി ചെക്കപ്പ് നടത്തുക കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പോൾ അതിന് വേണ്ടി നമ്മടെ സർക്കാർ പഞ്ചായത്ത് ഹോസ്പിറ്റലുകളൊക്കെ കുറച്ചുകൂടെ നന്നായി കൈകാര്യം ചെയ്തു മുന്നോട്ട് കൊണ്ടു പോവുകയാണങ്കിൽ നല്ലതായിരിക്കും ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോവുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഇപ്പോൾ അതിന് അത്രയ്ക്ക് പോകണ്ട ആവശ്യമില്ലെന്ന് എന്നാലും ചെറിയൊരു ആവശ്യം ആണ് എങ്കിൽ അത് നമുക്ക് അടുത്തുള്ള ഈ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യാനുള്ളൊരു അത് സാഹചര്യം ഉണ്ടായാൽ മതി ഉള്ളൊരു ഫെസിലിറ്റീസ്സ് നമ്മുടെ ഈ പഞ്ചായത്ത് ഹോസ്പിറ്റലുകൾക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇപ്പം ഒരു എന്തെങ്കിലുമൊരു സ്കാനിങ്ങോ എക്സ്റേ അല്ലെങ്കിൽ ബി പി ഷുഗർ ചെക്കപ്പ് അല്ലെങ്കിൽ സ്ഥിരമായി പോയി ട്വൻറി ഫോർ ഹവേഴ്സ് ഡോക്ടറുടെ ഫെസിലിറ്റീസ്സ് അതുപോലെ നേഴ്സിൻ്റെ ആ കമ്പോണ്ടറിൻ്റെ അതുപോലെ ആ ഒരു ആംബുലൻസ് അങ്ങനുള്ളതൊക്കെ ഉണ്ട് അതുപോലെ എല്ലാ മെഡിസിൻസിൻ്റെ ഒരു അവൈലബിളിറ്റി അതക്കെ ഉണ്ട് പറഞ്ഞാൽ നമ്മടെ ഹോസ്പിറ്റല് പഞ്ചായത്ത് ഹോസ്പിറ്റലിലൊക്കെ കുറച്ചൂകൂടെ ഒരുപാട് പേഷ്യന്റ്സ് വരുകയും ചെയ്യും അവർക്കൊരു സഹായം ആവുമായിരിക്കും അപ്പോൾ ഹോസ്പിറ്റലിപ്പം നമുക്ക് പഞ്ചായത്ത് ഹോസ്പിറ്റല് അതായത് ഫീസ് ഇല്ലല്ലോ ഫീസ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേർക്ക് അതൊരു സഹായമായിരിക്കും മറ്റു ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റു ഹോസ്പിറ്റൽ ചിലപ്പോൾ ജില്ലാ ഹോസ്പിറ്റല് അല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റല് ഒക്കെ അതിൻ്റെ ഒരു തിരക്കും നമുക്ക് കുറച്ച് കുറയ്ക്കാൻ ഇതുവഴി സാധിക്കും